എൻ്റെ താമസ സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണ് ആദിവാസികളും തോട്ടം തൊഴിലാളികളും കർഷകത്തൊഴിൽ തൊഴിലാളികളും ചെറുകിട കർഷകരും അടങ്ങുന്നതാണ് അടങ്ങുന്ന ഒരു പ്രദേശമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നറിയാത്ത നിരക്ഷരരായ തൊണ്ണൂറ് ശതമാനം നിരക്ഷരരായ ഞങ്ങളുടെ പ്രദേശത്ത് ഒരു എൽ പി സ്കൂൾ തുടങ്ങുകയും അവിടെ ഒരു ഹെഡ് മാസ്റ്റർ ആയി വന്ന വാസുദേവൻ മാസ്റ്റർ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു അദ്ധ്യാപകനായിരുന്നു വിദ്യാഭ്യാസത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും വീടുകൾ തോറും വീടുകൾ തോറും കയറി ഇറങ്ങി ബോധവൽക്കരണം നടത്തിയുമാണ് ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യ അഭ്യസിപ്പിച്ചത് യാതൊരു സൗകര്യവും ഇല്ലാത്ത ഞങ്ങളുടെ ഗ്രാമത്തിൽ ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു അദ്ദേഹം